ഹലോ സാർ ഇത് ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ് സ്റ്റേഷനല്ലേ എൻ്റെ പേര് ഗംഗ ഞാൻ ബാപ്പുജി നഗറിൽ നിന്നാണ് വിളിക്കുന്നത് എനിക്ക് ഒരു ഒരു കാര്യം സ്ഥിതീകരിക്കാനുണ്ട് എൻ്റെ ഈ ബുക്കിംഗ് റഫറൻസ് എൻ്റെ ബുക്കിംഗ് റഫറൻസ് നമ്പർ ഒന്ന് രണ്ട് നാല് എട്ട് ഒന്പത് ഏഴ് ആറ് അഞ്ച് പതിനഞ്ച് എന്നാണ് ഈ ബുക്കിംഗ് റഫറൻസില് ഞാൻ അവസാനമായി ചെയ്ത ഗ്യാസ് സിലിണ്ടറിൻ്റെ ബുക്കിംഗ് റദ്ദാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഞങ്ങളുടെ കെട്ടിടം കേന്ദ്രീകൃത വാതക വിതാരണത്തിലേക്ക് മാറുകയാണ് ആയതിനാൽ തന്നെയും വ്യക്തിഗത ബുക്കുകൾ ഇനി ഞങ്ങൾക്കാവശ്യമില്ല അതിനാൽ തന്നെ ഇത് റദ്ദാക്കാൻ വേണ്ട നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണം നിങ്ങളുടെ മറുപടിക്കായി ഞാൻ പ്രതീക്ഷിക്കുന്നു കേന്ദ്രീകൃത വിതരണം കാരണം നിങ്ങൾ ബുക്ക് ചെയ് കേന്ദ്രീകൃത വിതരണം കാരണം ഞാൻ ബുക്ക് ചെയ്ത സിലിണ്ടർ ഇനി ആവശ്യമില്ലെന്ന് മനസ്സിലാക്കുന്നു എൻ്റെ അപേക്ഷ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു